ഞാൻ കുട്ടികൾക്കു വാങ്ങിയ ഒരു ബുക്ക് അതില് അവരുടെ ഡ്രോയിങ്ങ് സ്കില്ലും വായന റീഡിങ് സ്കില്ലും വർദ്ധിപ്പിക്കാനുള്ള ഒരു ബുക്കാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ് വാങ്ങിയത് പക്ഷെ ആ ബുക്ക് എനിക്ക് ഉപയോഗകരമായില്ല ഞാൻ വിചാരിച്ച ഒരു റിസൾട്ട് എനിക്ക് ആ ബുക്കില്നിന്നു കിട്ടിയില്ല വളരെ ടഫായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജസും അവർക്ക് ഈസി ഈസിയായിട്ടു വായിക്കാനോ അല്ലെങ്കില് ഡ്രോയിങ്ങ് ചെയ്യാനോ അവർക്കു സാധിക്കാത്ത പോലത്തെ ഒരു ബുക്കാണ് എനിക്കു കിട്ടിയത് എനിക്ക് ആ ബുക്കിനെക്കുറിച്ചു വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഉണ്ടായത്